വീട് സിമന്റ് തിണ്ണയാണ് ഞങ്ങള് തൂത്തുവാരി തുടക്കാറൊള്ള് ആൻറ്റിസെപ്റ്റിക്ക് എന്തെങ്കിലും സൊല്യൂഷനൊഴിച്ചാണ് തുടയ്ക്കുന്നത് നിങ്ങള് ഞങ്ങള് എന്റെ വീട് ചാണകത്തറകൊണ്ടല്ല ഉപയോഗിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന ചാണകത്തറയുണ്ടായ എന്തെങ്കിലും ആരോഗ്യവശങ്ങള് നിങ്ങള്ക്കറിയാം ചാണകം കൊണ്ടു മെഴുകിയ തിണ്ണയില് നമ്മള് സിമന്റ് ചവി തിണ്ണേ ചവിട്ടുമ്പോള് നമ്മുടെ കാല് മരവിക്കും പക്ഷെ ചാണകം കൊണ്ട് മെഴുകിയ തിണ്ണയിൽ നമ്മള് കാല് ചവുട്ടുമ്പോള് നമ്മള്ക്ക് മരവിക്കത്തില്ല അങ്ങിനെ ഒത്തിരി നല്ല വശങ്ങളുണ്ട് വീടും പരിസരവും എപ്പഴും വൃത്തിയായിട്ടുവേണം സൂക്ഷിക്കാൻ